ആ പറ അതെ അതെ

എന്തു പറ്റിയതാണ് നിലത്ത് പോയതോ അങ്ങനെ എന്തെങ്കിലും ആയതാണോ അത് നിങ്ങൾ സെക്കൻഡ് ഹൻഡ് എടുത്തതാണോ അതെ അല്ലേ അതെയോ ഒരുപാടായോ നിങ്ങൾ വാങ്ങിയിട്ട് അത് ഇപ്പം നിങ്ങൾ ഒന്ന് ഷോപ്പിൽ വന്നാൽ നമ്മൾ കറക്റ്റ് ഒന്ന് നോക്കാൻ പറ്റുമായിരുന്നു ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷോപ്പിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ അ നിങ്ങൾ പുതിയത് നോക്കാനാണോ അത് ഒന്ന് നോക്കേണ്ടി വരും ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുകയുള്ളൂ ഓരോ പ്രോബ്ലം അനുസരിച്ചായിരിക്കും റെറ്റ് വരിക നിങ്ങൾ അതെ അതെ പുതിയ കമ്പ്യൂട്ടർ നോക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ സ്റ്റാർട്ടിങ് ഇവിടെ മുപ്പത്തി അഞ്ച് വരുന്നത് പക്ഷേ നിങ്ങളെ ഓരോ വർക്കുകൾ അനുസരിച്ചു നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അനുസരിച്ചു അതിൻ്റെ സാധനങ്ങൾ മാറുമ്പോൾ റേറ്റ് കൂടും സ്റ്റാർട്ടിങ് വരുന്നത് സാധനത്തിൽ സാധാ ക്ലാസ്സുകൾ അതുപോലെ യൂട്യൂബ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ മുപ്പത്തി അഞ്ച് വരുന്നത് അതൊക്കെ ആവുമ്പം കുറച്ചു നല്ല റേറ്റ് വരും ഇപ്പം ഓഫറൊക്കെ ഉണ്ടാവും വിഷു ഓണം ആവുമ്പം ഷോപ്പിൽ വന്നാൽ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കുമോ നിങ്ങൾ ഷോപ്പിലേക്ക് വരികയാണെങ്കിൽ എല്ലാം കൃത്യയമായിട്ട് ഒന്ന് അറിയാൻ സാധിക്കും ഞങ്ങൾ കോഴിക്കോട് റെയിൽവേയുടെ അടുത്താണ് അതെ നിങ്ങൾ എപ്പോഴാണ് വരാൻ പറ്റുക നിങ്ങൾക്ക് ആ അപ്പം നോക്കിയിട്ട് പെട്ടെന്ന് വാ കേട്ടോ ശരിയേ ഓക്കെ താങ്ക് യു